എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കെറ്റിൽ ആണ് ഫസ്റ്റ് പ്രോഡക്റ്റ് കിട്ടിയിരുന്നത് കാരണം എന്താണെന്നു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കെറ്റിൽ നല്ല രീതിയിലുള്ള ഉപയോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കെറ്റിലിൻ്റെ ഉപയോഗം എന്താണെന്നു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് രാവിലെ കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടീയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും നമ്മൾ രാവിലെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം രാവിലെ നമ്മൾ കൂടുതലായിട്ടും ഈ പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഈ വിറക് അങ്ങനെയൊക്കെ വെച്ചിട്ടാണിപ്പോൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ചൂടാക്കുക അപ്പം അതിന് അതിൽ നിന്നാണ് നമ്മൾ കാപ്പിയും കാര്യങ്ങളൊക്കെ പണ്ട് കാലത്തൊക്കെ വെച്ചു കൊണ്ടിരുന്നത് പിന്നെ അതി അതിൽ നിന്നും നല്ല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് നമുക്ക് ഗ്യാസ് അടുപ്പും കറണ്ടടുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കൊണ്ടിരുന്നത് അപ്പം കറണ്ടടുപ്പ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മാറി മാറിയൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കറണ്ടടുപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചു കൂടി എളുപ്പമായിട്ട് നമുക്ക് കെറ്റിൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അതിനകത്തു തന്നെ നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ചൂടും നല്ല രീതിയിൽ നില നിൽക്കും പിന്നെ നമുക്കപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചൂടാക്കണമെങ്കിൽ ജസ്റ്റ് പ്ലഗ് നമുക്ക് റൂമിൻറ്റുള്ളിൽ തന്നെ വേണമെങ്കിൽ ചൂടാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കെറ്റിൽ സാധിക്കുന്നതാണ് അപ്പം ആ കെറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും